യുവതലമുറ കൃഷിയെ കാണുന്നത് ഒരു തൊഴിലായിട്ടാണോ അതോ അതൊരു ജീവിത രീതിയായിട്ടാണോ എന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാർക്ക് പൊതുവേ കൃഷിയിലേക്കിപ്പം വരാൻ താൽപ്പര്യം കൂടുതലാണ് പണ്ടൊക്കേന്ന് പറഞ്ഞാൽ കൃഷിയിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ മറ്റൊരു പണിയില്ലാത്തവരാണ് കൃഷിക്ക് ഇറങ്ങുക അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അല്ല ഇപ്പം നമുക്ക് ഇത് ബിരുദം അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് പോലും അവർക്ക് കൃഷിയോടുള്ള താൽപ്പര്യം കൊണ്ട് കൃഷിയിലേക്ക് വരുന്നവരുണ്ട് പിന്നെ അതിൻ്റെ പുതിയ രീതികൾ എന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാണ് ഇപ്പം ഉഴുന്ന് ഉഴുത് കണ്ടം ഉഴുത് അല്ലെങ്കിൽ നെൽകൃഷി അല്ലെങ്കിൽ മറ്റ് കൃഷി രീതികൾ ഇപ്പം തെങ്ങ് കയറാൻ തന്നെ യന്ത്രം അതുപോലെ ഒത്തിരി യന്ത്രങ്ങളുടെ വരവോടുകൂടി ആൾക്കാർക്ക് കൃഷിയിലേക്ക് വരാനുള്ള താൽപ്പര്യം കൂടി എന്ന് തന്നെ പറയാം ഇപ്പം പണ്ടക്കേന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വണ്ടി അല്ല നമ്മളെല്ലാം ചുമക്കണം അല്ലെങ്കിൽ കാള പൂട്ടണം ഇപ്പം കണ്ടം ഉഴുത് മറിക്കണേൽ കാള ഇപ്പം അങ്ങനെയല്ലല്ലോ അങ്ങനെയെല്ലാ കൃഷിയിലേക്ക് വരാനുള്ള ഒരു ഇത് ആൾക്കാർക്കിന്ന് കൂടുതലാണ് പൊതുവേ ചെറുപ്പക്കാരൊക്കെ കൃഷിയിലേക്ക് നന്നായിട്ട് വരുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ആൾക്കാർക്ക് ഇപ്പോഴത്തെ ആ ഒരു പുതിയ രീതി അല്ലെങ്കിൽ ആരോഗ്യകരമായ ഇപ്പം പൊതുവേ പച്ചക്കറിയിലേക്ക് ആൾക്കാർ തിരിയുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ആരോഗ്യമുളള ഒരു നല്ല പച്ചക്കറി കഴിക്കാൻ വേണ്ടിട്ട് പച്ചക്കറി തന്നെ കൃഷി ചെയ്യുന്ന ചെറുപ്പക്കാർ അങ്ങനെയെക്കെ ഉണ്ട് ഇപ്പം നമുക്കറിയാം നമ്മുടെ ഇപ്പം സെലിബ്രറ്റീസൊക്കെ കൃഷിയിലേക്ക് തിരിയുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം അവർക്കൊക്കെ ഒരു പക്ഷേ സാമ്പത്തിക നേട്ടത്തിനല്ല അവരൊക്കെ ഒരു എന്താ പറയുന്നത് ഒരു ഒരു സമയം പോക്കിനോ അല്ലെങ്കിൽ അവരുടേതായ ഒരു കൃഷി എങ്ങനെയാന്നൊന്ന് പരിശോധിക്കാനോ ഒന്നും ഒരു പരീക്ഷണത്തിനോ ഒക്കെ മുതിർന്നവരായിരിക്കും എന്തായാലും കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ്റെ തന്നെ നിലനിൽപ്പ് എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം